വരൂ ഇരിക്കൂ എന്താ പറ്റിയത് എന്താ പറ്റിയത് ഏത് കാലിനാണ് ആണോ നോക്കട്ടെ ആണോ നോക്കട്ടെ എന്നാല് ഓ ഓ ആ ഇതില് ചെറിയ ഒരു പൊട്ടല് കാണുന്നുണ്ട് എത്ര ദിവസം ആയി ഇത് ആണല്ലേ ഇതിന് ഇപ്പോൾ ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വരും അതെ അതെ ഇല്ല ചെറിയ ഒരു ഓപ്പറേഷനാണ് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലും പോകാൻ പറ്റും ആ വേണം ആൾ ഉണ്ടാവില്ലേ വരാൻ ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ പേടിക്കണ്ട ആവശ്യം ഒന്നും ഇല്ല കാലിൻ്റെ മസിൽസിന് ചതവ് ഉണ്ട് നിങ്ങളുടെ ഈ സി ടി സ്കാനിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നല്ലതായിട്ടൊന്നും ഇല്ല സീ ടി സ്കാനില് കാണിക്കുന്ന ആയത്കൊണ്ടും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കളയാം കാലിനല്ലേ ആണോ എന്നാൽ നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് അവരോട് പറഞ്ഞ് ഓപ്പറേഷൻ്റെ പൈസ അടച്ചോ ആ ഏകദേശം ഒര് അമ്പതിനായിരം അടുത്ത് ആകും ആ ആ ഇപ്പോൾ തന്നെ അടക്കുന്നില്ലേ ഓ ആ എങ്കിൽ അടച്ച കടലാസും കൊണ്ട് ഓപ്പറേഷൻ മുറിയുടെ അവിടെ വന്നോ അവരോട് പറ അങ്ങനെ വരാൻ ഓപ്പറേഷൻ റൂമിലേക്ക് മാറാം